ഹലോ സജിത്തേട്ടാ എന്തെക്കെ ഉണ്ട് കാര്യങ്ങൾ നമ്മുടെ അടുത്ത ആഴ്ച വരുന്ന ഗസ്റ്റിൻ്റെ മീറ്റിംഗിനെ ബുക്കിങ്ങിനേ പറ്റി സംസാരിക്കുവാനാണ് ഞാൻ വരുന്നത് പതിനഞ്ചാം തീയ്യതി നമ്മുടെ ജോൺസൺ ആൻഡ് ഫാമിലി ഇവിടെ ബുക്കിംങ്ങുണ്ട് എന്തൊക്കെ പരിപാടികളാണ് അവർക്കായി അറേഞ്ച് ചെയ്യേണ്ടതെന്ന് ഒന്ന് പറയാമോ ശരി പതിനെട്ടാം തീയ്യതി നായർ ഒരു നായർ ഫാമിലിയുടെ മീറ്റിഗ് ബുക്കിംഗ് ഉണ്ടായിരുന്നു അവർക്ക് എന്തൊക്കെ പ്രത്യേകമായ പരിപാടികളാണ് നാം അറേഞ്ച് ചെയ്ത് കൊടുക്കേണ്ടത് ശരി അത് നമുക്ക് അതുപോലെ തന്നെ ചെയ്യാം അതുപോലെ തന്നെ ഇരുപതാം തിയതി മാധവേട്ടൻ്റെ ഫാമിലിയുടെ ഒരു ബുക്കിംഗ് ഉണ്ടായിരുന്നു അവർക്കെന്തോ ആദ്യ കുർബാന അതുപോലെ എന്തോ പരിപാടിയുമായി ആണ് അവർ പറയുന്നത് എന്തൊക്കെ പ്രത്യേകതയാണ് നമ്മൾ അവിടെ ചെയ്തു കൊടുക്കേണ്ടത് അവിടെ ആഹാര ക്രമീകരണം എങ്ങനെയാണ് ചെയ്യേണ്ടത് ഓക്കെ അതുപോലെ ചെയ്യാം അത് മനസ്സിലായി പിന്നെ ഇരുപത്തി രണ്ടാം തീയ്യതി മിനിയുടെ ബുക്കിംഗുണ്ട് അവർക്ക് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് പ്രൊഫസറുടെ പാർട്ടി എന്ന് പറയുമ്പോൾ നമ്മൾ കേക്ക് അറേഞ്ച് ചെയ്യേണ്ടതായിട്ടുണ്ടോ നമ്മൾ സെറ്റ് ചെയ്യേണ്ട ഹാള് ഏ സി ആണോ അതോ സാധാരണ ഹാള് മതിയോ അവർക്കായി ഓക്കെ മനസ്സിലായി നാളെ മുറികളെല്ലാം നീ തന്നെ ഡെക്കറേറ്റ് ചെയ്യണം മീറ്റിംഗ് ഹാളും നീ തന്നെ ഒരുക്കേണ്ടതാണ് കൂടെ ആരെങ്കിലും വേണെമെങ്കിൽ ഇനിയും ആൾക്കാരെ വിളിച്ചോളുക ആ ശരി ഞാൻ അതിനെപ്പറ്റി അപ്ഡേറ്റ് ചെയ്തേക്കാം ശരി എന്നാൽ